മോനേ ഞാൻ മോനെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു അതെന്തായിത് പത്രം ഇങ്ങനെ തറയിൽ എറിഞ്ഞിട്ട് പോകുന്നത് അല്ലാ ഒരു പരാതി പറയുന്നുണ്ടായിരുന്നു കുട്ടികളൊക്കെ പറയുന്നുണ്ടായിരുന്നു രാവിലെ എണീറ്റു നോക്കുമ്പോൾ ചളിയിലിങ്ങനെ കുതിർന്നിട്ട് പത്രം കിടക്കുകയാണ് അപ്പോൾ മഴയും കാര്യങ്ങളൊക്കെയല്ലേ ഗേറ്റിന്റെ ആ ഗേറ്റിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇത് വയ്ക്കാനായിട്ട് ഒരു സ്ഥലമൊക്കെയുണ്ടല്ലോ അതില് വെച്ചിട്ട് പോവാമായിരുന്നില്ലേ

അല്ല പട്ടിക്കും പൂച്ചക്കും ഒന്നും എടുക്കാൻ കൈയെത്താൻ ദൂരത്തൊന്നുമല്ല അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം

പിന്നെ കുറച്ച് കുറച്ച് താമസിക്കുന്നുണ്ട് പത്രം വരാൻ ആ

അങ്ങനെയല്ലേ എത്ര മണിക്കാണ് നിങ്ങളവിടന്ന് പത്രം എടുക്കൽ അതെയല്ലേ

വൈകുന്നത് ഒരു പ്രശ്നമാണ് കാരണം ഇവിടെ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ അവര് ഏഴ് മണിക്ക് തന്നെ പോവും അപ്പോൾ ഒരു ആറരക്കൊക്കെ പത്രം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഒന്ന് വായിച്ചൊക്കെ ഇരിക്കാൻ കഴിയുക അപ്പോൾ കുറച്ചൊന്ന് നേരത്തെ വന്നാലാണ് പിന്നെ നല്ലത് അപ്പോൾ മോന്റെ വീട് എവിടെയാണ് ഇവിടെ അടുത്തൊക്കെ തന്നെയാണോ ആ കുറേ സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ടല്ലേ

ആ ആ കുറച്ച് വൈകി വരുന്നതും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ വേറെ ഏതോ ഒരു പത്രം ആണ് ഇട്ടതെന്നാണ് പറയണത് ഞങ്ങള് സാധാരണ മാതൃഭൂമിയാണ് മേടിക്കൽ ഇന്നലെ വേറെ ഏതോ പത്രമാണ് വന്നതെന്നാണ് പറഞ്ഞത് ആ ആ ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ പൈസയല്ലേ ആ അത് എന്തായാലും നാളെ തരാം ഇനി എന്തായാലും നാളെ വരൂ നാളെ തരാം എത്രയാ എത്രയാണ് അല്ല മാതൃഭൂമിയാണ് മാതൃഭൂമിയാണ് ആ ആ ആ അത് എന്തായാലും നാളെ തരാം പിന്നേ ഒരു രണ്ട് പ്രാവശ്യം ആരോഗ്യ മാസികയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എത്രയാവും നാനൂറാവും അല്ലേ

ആ ഓക്കെ അപ്പോൾ അത് തരാം നാളെ തരാം ആ ശരി ഓക്കെ ശരി മോനെ ശരി